നമ്മൾ വീടിനു ചുറ്റുമുള്ള പ്രദേശങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാറുണ്ട് മുറ്റം എല്ലാ ദിവസവും തൂത്ത് വൃത്തിയാക്കി കരിയിലകളൊക്കെ കൂട്ടിയിട്ട് തീയിട്ട് കത്തിച്ച് കളയാറുണ്ട് കരിയിലകളങ്ങനെ കൂട്ടി വെക്കാറില്ല കാരണം അത് മഴ വെള്ളമൊക്കെ വീണ് അവിടെ കിടന്ന് ചീത്തയാകുന്നത് കൊണ്ട് കൂട്ടി അപ്പോഴേ കത്തിച്ച് കളയാറുണ്ട് പിന്നെ പോച്ചെയൊക്കെപ്പറിച്ച് മുറ്റം വൃത്തിയാക്കാറുണ്ട് പിന്നെ എങ്ങും വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ നമ്മൾ വെള്ളം എവിടെയെങ്കിലും കെട്ടി നിൽക്കുന്നെങ്കിലത് മറിച്ച് കളഞ്ഞ് അങ്ങനെ എങ്ങും കെട്ടി നിൽക്കാത്ത രീതിയിൽ നമ്മളാക്കാറുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഇവിടെയിപ്പം പല സൈസ് പനികളൊക്കെ പടർന്ന് പിടിക്കുന്നുണ്ട് ഡെങ്കിപ്പനി പോലത്തെ ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങൾ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നതു കൊണ്ട് ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ മുറ്റം വൃത്തിയാക്കി ചെടികൾ വെച്ച് പിടിപ്പിക്കാറുണ്ട് പച്ചക്കറികൾ മുറ്റത്ത് തന്നെ നാടാറുണ്ട് അപ്പം നമുക്ക് ആ രീതിയിലൊക്കെ കൂടി വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കിട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ വീടും പരിസരവും വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ മുറ്റം സൂക്ഷിക്കുന്നത്